അ എന്തായിരുന്നു

വീട്ടിൽ ആർക്കെങ്കിലും ഫീവർ പനി വന്നിട്ടുണ്ടായിരുന്നോ അതെയോ വേറെ കുഴപ്പം ഒന്നും ഇല്ല മേല് വേദന വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നുമില്ല അത് ശെരി ഞാനെന്തായാലും മൂന്ന് ദിവസത്തേക്ക് മരുന്ന് എഴുതി തരാം പാരസെറ്റമോളും ഒരു ജലദോഷത്തിൻ്റെയും പിന്നെ മേലുവേദനയുടെയും കഴിച്ച് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ ഒന്നുകൂടി വന്നു കാണിച്ചാൽ മതി തല കുളിക്കുന്നതിനിപ്പോൾ എന്താ പനി ഉണ്ടെങ്കിലും കുളിക്കുന്നത് നല്ലതാണ് കേട്ടോ കുളിക്കുന്നതിന് ഒരു പ്രശ്നം ഒന്നുമില്ല പിന്നെ കൊച്ചിൻ്റെ അടുത്ത് പോകാതെ ഇരിക്കാൻ നോക്കുക കൊച്ചിൻ്റെ അടുത്ത് പോകാതെ ഇരിക്കാൻ നോക്കുക കൊച്ചിനെ ഹസ്ബൻഡ് ടേക്ക് ചെയ്യട്ടെ നിങ്ങൾ മാറി താമസിച്ചാൽ മതി ഫീഡ് ചെയ്യണം അല്ലേ അതെ ഫീഡ് ചെയ്യുന്നത് ആ നേരത്തെ കുഴപ്പം ഇല്ല അല്ലാതെ കൊച്ചിനെ എടുത്തോണ്ട് നടക്കേണ്ട ആ ഒരു ഇത് ബുദ്ധിമുട്ട് കുറച്ച് നേരം ഹസ്ബൻഡ് നോക്കാൻ പറ ഫീഡ് ചെയ്യുമ്പോൾ മാത്രം കൊച്ചിനെ നോക്കിയാൽ മതി പിന്നെ കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ചുമ ഉണ്ടോ ചുമ ആൾറെഡി ആദ്യമേ ഉണ്ടായിരുന്നത് ആണോ അതോ ഈ പനി വന്നതിന് ശേഷം വന്നതാണോ അ അതിൻറെയായിരിക്കും അ എന്തായാലും വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഇളം ചൂടുള്ള വെള്ളം തന്നെ കഴിക്കാൻ നോക്ക് കുടിക്കുമ്പോൾ പിന്നെ കുളിച്ചോ കുളിക്കുന്നതിന് കുഴപ്പം ഒന്നുമില്ല വെള്ളം ഫുഡ് ചൂട് തണുത്തത് കഴിക്കണ്ട ചൂടുള്ളത് കഴിച്ചോ മരുന്ന് കുടിച്ച് നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം എന്താണെന്ന്